ഹലോ സബ്ക്കാർ റെസ്റ്റോറൻറ്റ് അല്ലെ ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയും അതുപോലെ രണ്ട് അൽഫഹമിൻ്റെ പീസുകളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അവിടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് അവിടെ എല്ലാ ഡെസേർട്ടുകളും ഉള്ള ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ഹലോ കേൾക്കുന്നുണ്ടോ അതേ ഡെസ്സേർട് ഐറ്റംസ് എന്തൊക്കെയുണ്ട് അതായത് കേക്കോ ഐസ് ക്രീം ഹൽവ അങ്ങനെ എന്തെങ്കിലും അവിടെയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഈ ഭക്ഷണം ഓർഡർ ചെയ്ത ഭക്ഷണത്തിൻ്റെ കൂടെ രണ്ട് ഐസ് ക്രീമും ഒരു കേക്ക് പീസും കൊടുത്തയക്കണം